എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രില്ലാണ് ഡ്രില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വച്ചു കഴിഞ്ഞാല് നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ തുളക്കണമെങ്കിലൊക്കെ ഉപയോഗിക്കാനാണ് ഈ ഡ്രിൽ എന്ന് പറയുന്ന സാധനം അപ്പോൾ അത് നമ്മള് കൂടുതലായിട്ടും ഞാന് ഇങ്ങനെ ഒരോ പണിക്കാരുടെ അടുത്തൊക്കെ നിക്കുന്ന കണ്ടിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ വണ്ടി നന്നാക്കാൻ പോയ സ്ഥലത്ത് സ്ഥലങ്ങളിൽ ഒക്കെ പിന്നെ വീട് പണിയുന്നിടത്ത് അങ്ങനത്തെ പലതരം എന്ത് സാധനം നമുക്ക് വേണമെങ്കിലും അതിനകത്ത് തുളയ്ക്കാം വേണ്ടിയിട്ട് അതിനു ബിറ്റു മാത്രം നമ്മൾ മാറ്റി ഇട്ടാൽ മതി അപ്പം അത് അങ്ങനെ കണ്ടിട്ടാണ് ഞാൻ കൂടുതലായിട്ടും അത് വാങ്ങിയത് നല്ല ഒരു പ്രൊഡക്റ്റാണ് പക്ഷേ ചില സമയങ്ങളിൽ എന്താന്നു വച്ചു കഴിഞ്ഞാല് ചില സമയത്ത് സ്പീഡ് കുറവുള്ളത് പോലെ തോന്നും വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നല്ലൊരു പ്രൊഡക്റ്റാണ് നമുക്കിപ്പോൾ എന്ത് സാധനം വേണമെങ്കിലും തുളയ്ക്കാൻ ആണെങ്കിലും ഇപ്പോൾ ഭിത്തിയിൽ നമുക്ക് ഒരു കർട്ടൻ ഇടാൻ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് സ്ക്രൂ അടിക്കാൻ അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും നടക്കൂല കർട്ടന് അപ്പം നമ്മളത് തുളച്ചതിനുശേഷം അതിനകത്ത് വേറൊരു സംഭവം ഇട്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കർട്ടനും കാര്യങ്ങളും ഒക്കെ വെക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മള് തുളയ്ക്കണമെങ്കില് നമ്മുടെ അടുത്ത് എന്തായാലും ഡ്രില്ലിങ് മെഷീനും കാര്യങ്ങളൊക്കെ വേണം ഇല്ലെങ്കിൽ നമ്മള് കുത്തിത്തുളയ്ക്കുമ്പോൾ പല രീതിയിലുള്ള മാർക്കിങ്ങും കാര്യങ്ങളും പൊതുവേ ലൂസ് ആയി പോകാനോക്കെ ഭയങ്കര പാടായിരിക്കും ഇതായിരിക്കും അപ്പം അതുകൊണ്ട് നമുക്ക് ഡ്രില്ലിങ് മെഷീന് എന്തായാലും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്